അതൊക്കെ ഓരോ കുട്ടികളുടെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിപ്പോൾ പത്ത് വയസ്സൊക്കെയാണ് മിനിമം ആ കുട്ടി മെച്യൂഡായിട്ട് അത്യാവശ്യം നന്നായി വരക്കാനൊക്കെ അറിയാ അറിയും മെച്യൂരിറ്റി മീൻസ് വരക്കാനൊക്കെ പറഞ്ഞാൽ കേക്കുന്ന ഈ കളിയൊക്കെ മാറി കുറച്ച് സീരിയസാവണ പ്രായമാണ് മിനിമം അത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് പിന്നെ അതേപോലെ ഇപ്പോൾ കുട്ടികൾക്ക് കഴ് കഴിവൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു യുപി തലം എൽപി തലം അതേപോലെ സ്കൂൾതലം കോളേജ് തലത്തിലൊക്കെ ഇതിനുവേണ്ടി പ്രത്യേകം കോമ്പറ്റീഷനും മീറ്റ് പോലെ ഒക്കെ വയ്ക്കാറുണ്ട് അപ്പം നമുക്ക് അവരുടെ കഴിവറിയാൻ പറ്റും അവർക്ക് എത്ര കണ്ട് വരക്കാനൊക്കെ കിട്ടും അതേപോലെ ഇവരെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ജില്ലാതലം സ്റ്റേറ്റ് തലത്തിലൊക്കെ കൊണ്ടുപോയിട്ട് ഇവരുടെ കഴിവ് മെച്ചപ്പെടുത്തി എടുക്കാനൊക്കെ നമുക്ക് സാധിക്കും അതൊക്കെ വളരെ വലിയ ഒരു കാര്യമാണ് ഇപ്പോൾ കുട്ടികളുടെ ഒക്കെ അത് നമുക്കു അവരുടെ വാസന അറിയാനും അവരുടെ നല്ല രീതിയിലുള്ള പെർഫോമൻസിനൊക്കെ ഇത് ഉതകുന്നതാണ്